ഹലോ ഇത് സുഹൈറല്ലേ ആ ഇത് സുഹൈറല്ലേ ആ അപ്പോൾ ഞാനീ വിളിച്ചത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ മോനില്ലേ മോൻ്റെ യൂണിറ്റ് ടെസ്റ്റ് ഇപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം കഴിഞ്ഞു അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ അതെ അതെ അതെ അപ്പോൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് മാർക്ക് തീരെ കുറവാണ് ആ കുറവാണ് അൽ അപ്പോൾ ആ എല്ലാ സബ്ജെക്റ്റിൽ അവന് ഏകദേശം മാർക്ക് കുറവാണുള്ളത് കാരണം എന്താച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എല്ലാ ടീച്ചർമാരടുത്ത് ഞങ്ങൾ നോക്കിയായിരുന്നു ആ അപ്പം മാർക്കിത്തിരി മാ പഠിക്കുന്നേക്കെ ആയിരിക്കും പക്ഷേ ഇവിടെ മാർക്ക് ലേശം കുറവാണ് അപ്പം അത് പറയാൻ വേണ്ടി വിളിച്ചതാണ് അപ്പം അതിൻ്റെ പ്രോഗ്രസ്സ് കാർഡക്കെ ഞങ്ങൾ കൊടുത്ത് വിടാം കുട്ടീൻ്റടുത്ത് അപ്പം ഞങ്ങൾ എല്ലാ പാരന്റിന്റേം ഇപ്പം വിളിക്കും ആ വീട്ടിലേക്ക് കൊടുത്ത് വിടും ഇപ്പം എല്ലാ പാരന്റിനേം ഞാൻ ഇപ്പം വിളിച്ചോണ്ടിരിക്കുവാണ് സംസാരിക്കാൻ വേണ്ടീട്ടെ ആ അപ്പോൾ ഞാനീ ആ അപ്പം ഞാനത് അതാണ് ഞാൻ നിങ്ങളേം വിളിച്ചത് അപ്പോൾ കുട്ടീനെ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അവന് മൈനായിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ മാത്സിനാണ് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് തോന്നുന്നു കാരണം മാത്സ് വലിയ രീതിയിൽ ഒന്നും അറിയില്ല അപ്പോൾ നമ്മുടെ ഗുണന ഗുണന പട്ടിക ഒന്നും വലിയ രീതീയിലറിയില്ല ആ മാത്സിൽ അപ്പം മാത്സിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കുവാണെങ്കിൽ കുട്ടിയെ നന്നായിട്ട് റെഡി ആക്കി എടുക്കാൻ പറ്റും അപ്പം മാക്സിമം നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്ക് കാരണം എന്താച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പരിമിതി ഉണ്ടല്ലോ നിങ്ങൾ വീട്ടീന്നും നല്ല രീതിയിൽ പഠിപ്പിച്ചാൽ മാത്രമേ നമുക്ക് കുട്ടിയെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റുവൊള്ളു നമ്മളിപ്പോൾ എല്ലാ ആഴ്ച്ചയിലും യൂണിറ്റ് ആ നമ്മൾ എല്ലാ ആഴ്ച്ചയിലും യൂണിറ്റ് ടെസ്റ്റ് നടത്തും കാരണം കുട്ടികളെങ്ങനെ ആയിരിക്കുന്ന ഇപ്പോൾ ഓരോ കുട്ടികൾക്കും വ്യത്യസ്ത രീതിയിലാണല്ലോ പഠനം പഠനോം കാര്യങ്ങളൊക്കെ അപ്പോൾ അവർ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടീട്ട് നമ്മൾ എല്ലാ ആഴ്ച്ചയിലും ഇങ്ങനത്തെ കാര്യങ്ങളക്കെ ചെയ്യും അതായത് യൂണിറ്റ് ടെസ്റ്റും കാര്യങ്ങളക്കെ ചെയ്യും ഇനി അടുത്ത യൂണിറ്റ് ടെസ്റ്റ് അടുത്ത ആഴ്ചയായിരിക്കും അപ്പം നമ്മളിതിൻ്റെ പ്രോഗ്രസ്സ് കാർഡ് നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊച്ചിൻ്റെ കയ്യിൽ ഞാൻ കൊടുത്ത് വിടാം പിന്നെ ഈ യൂ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂട്ടോ ആ ഓക്കെ ആ ആ മീറ്റിങ്ൻ്റെ ഡേറ്റ് ഞാൻ വിളിച്ച് പറയാം മീറ്റിങ് എപ്പോഴാന്ന് പ്രിൻസിപ്പള് ഇതുവരെ പറഞ്ഞിട്ടില്ല മീറ്റിങ്ങിൻ്റെ ഡേറ്റ് ഞാൻ സാറിന് ഞാൻ വിളിച്ച് പറയാം ആ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഞാനിനി വിളിക്കാട്ടോ മീറ്റിംഗിൻ്റെ ടൈമിൽ ആ ഓക്കെ സാർ